ഞാന് നേരത്തെ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു എന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അത് അപ്പോൾ റദ്ദാക്കാൻ വേണ്ടിട്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് അവിടുന്നു ഇപ്പോൾ അത്യാവശ്യം ആയിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുവാണ് അപ്പോൾ ഞാൻ ആ പോക്ക് ക്യാൻസൽ ചെയ്തു അപ്പോൾ അത് എന്താ നമുക്ക് പോകേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ അവിടെ ആ അപ്പോൾ ഡ്രൈവറ് ഇപ്പോൾ അതായത് ഞാന് നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഇവിടെ എത്താറായിരുന്നു ആ ഞാൻ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അവര് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പുള്ളി കറക്റ്റ് ടൈമിന് എത്തിയിട്ടുമില്ല ഞാന് രാവിലെ എട്ട് മണിക്ക് ആണ് ഞാന് എത്താൻ പറഞ്ഞത് പക്ഷേ ഞാൻ കുറെ നേരം നിന്നത് അല്ലാണ്ട് പുള്ളി എത്തിയതുമില്ല പിന്നെ ഞാൻ ആ പോക്ക് ക്യാൻസൽ ആക്കേണ്ടിയും വന്നു അപ്പോൾ അത് റദ്ദാക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ഞാൻ എന്നിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് വേറെ ഒരു സ്ഥലത്തേക്ക് പോയത് തൽക്കാലം ഞാൻ ഇപ്പോൾ അവിടെ പോകുന്നില്ല എന്ന് വെച്ചു സാധാരണ എനിക്ക് ഒരു ടൈമിന് എത്തേണ്ടത് ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് ആണ് ഞാന് ക്യാബ് ബുക്ക് ചെയ്തത് പക്ഷേ എട്ട് മണിക്ക് എത്താമെന്ന് പറഞ്ഞ ആള് ഒരു മണിക്കൂറ് ആയിട്ടും എത്താത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ക്യാബ് റദ്ദാക്കിയത് ആ ഓക്കേ ഓക്കേ അങ്ങനെ ആണെങ്കിൽ എന്തായാലും എനിക്ക് ഇനി ആ ക്യാബിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്നാൽ ശരി എന്നാല്